ഒരു പാസഞ്ചർ ബസ് നോക്കണ പറഞ്ഞാൽ നമുക്ക് മിനിമം നാപ്പത്തെട്ട് സീറ്റ് അങ്ങനത്തെയാണ് നമ്മൾ ഉദേശിക്കുന്നത് അപ്പോൾ അതിൽ വന്നിട്ട് എങ്ങനെ നോക്കണാ പറഞ്ഞാൽ ഡ്രൈവർ സീറ്റ് ഉണ്ടാവും ഡ്രൈവർ സീറ്റിൻ്റെ ഇപ്പുറത് അതിൻ്റെ ഗിയർ ബോക്സും കാര്യങ്ങളും ആ സംഭവം വരുന്നതാണ് അതിൻ്റെ ഗിയർ ബോക്സ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത് അവിടെയാണ് ഗിയർ ലിവർ വരുക അതിൻ്റെ ഇപ്പുറത്ത് ഒരു സൈഡിൽ സീറ്റ് ഉണ്ടാകും ആ സീറ്റിൽ ഒരു ആറ് ആൾക്ക് അല്ലെങ്കിൽ അഞ്ചാൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് നീളത്തിൽ ഉള്ള ഒരു സീറ്റ് ഉണ്ടാകും അത് കഴിഞ്ഞാൽ വരുന്നത് ഡോറാണ് ആ ഡോറ് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഈ സൈ നമ്മൾ ഡോറിൻ്റെ സൈഡ് നോക്കുവാണ് പറയുമ്പോൾ രണ്ടാൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റാണ് നമ്മളുടെ സാധാരണ ബസുകളിൽ വരിക അതങ്ങനെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് വരിയുണ്ടാവും അങ്ങനെ അതിൻ്റെ അപ്പുറത്ത് നോക്കുവാണ് പറയുമ്പോൾ അതായത് ഡ്രൈവറിൻ്റെ ബാക്കിലോട്ട് നോക്കുവാണ് എന്ന് പറയുമ്പോൾ മൂന്ന് പേർക്കുള്ള ഒരു എട്ട് സീറ്റ് അടുപ്പിച്ച് അടുപ്പിച്ച് ഒരു എട്ട് സീറ്റ് വരുന്നുണ്ടാവും അപ്പോൾ അതുപോലെ നമ്മൾ പിന്നെ നോക്കുവാണ് പറയുമ്പോൾ അതിൽ വരുന്നത് ഡ്ര രണ്ട് നിരയുടെ ബാക്കിലായിട്ട് ഡോറ് വരും ബാക്ക് ഡോറ് വരും ചില ബസുകളിൽ നമ്മൾ നോക്കുവാണെന്ന് പറയുമ്പോൾ സെൻറ്ററിൽ ആയിരിക്കും ഡോറ് വരിക നമുക്ക് ഇപ്പോൾ നമ്മളുടെ എറണാകുളം റൂട്ടിൽ ഒക്കെ നോക്കുവാണ് എന്ന് പറയുമ്പോൾ ഡോറ് നടുക്കിൽ വരുന്ന പോലെയാണ് സിംഗിൾ ഡോറ് അത് കുറച്ച് വലുപ്പം കൂടിട്ട് ഡോറ് നടുക്കിൽ വരണ പോലെയാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഇങ്ങോട്ട് പാലക്കാടൊക്കെ കോഴിക്കോടൊക്കെ നോക്കുവാണ് പറയുമ്പോൾ ഡബിൾ ഡോറാണ് മിക്ക ബസുകളിലും വരണത് പിന്നെ നമുക്ക് വരണത് ബാക്ക് സീറ്റാണ് ബാക്ക് സീറ്റിൽ വന്നിട്ട് ഇതുപോലെ ഒരു ഏട്ടാൾക്ക് ഇരിക്കാൻ പറ്റുന്ന വലിയ ഒരു സീറ്റ് ആണ് ഉണ്ടാകുക അതിൻ്റെ ഇടയിൽ യാത്രക്കാർക്ക് പിടിക്കാനും പിടിച്ച് നിൽക്കാനും മൂള മുകളിലായിട്ട് കമ്പി കാര്യങ്ങൾ ഉണ്ടാകും പിന്നെ സൈഡിൽ നമുക്ക് ഉള്ളിലായിട്ട് തന്നെ അടി സേ മറ്റേ ഡോർ അതായത് സീറ്റിൻ്റെ സൈഡിലായിട്ട് അതുപോലെ കമ്പി പിടിക്കാൻ ഉണ്ടാകും പിന്നെ നമ്മള് ബസിൽ നോക്കണെന്ന് പറയുമ്പോൾ ബസിൻ്റെ മുകളിലായിട്ട് ക്യാരേയേജ് ഉണ്ടാകും ക്യാരേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇരുമ്പിൻ്റെ ഇത് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ നമുക്ക് അത്യാവശം സാധനങ്ങളും കാര്യങ്ങളും വെക്കാനായിട്ടുള്ള സാധനങ്ങളാണ് മുകളിൽ ഉണ്ടാകുക മൊത്തം ഏകദേശം ബാക്കിൽ നമുക്ക് ഡോർ സ്റ്റെപ്പ് ഉണ്ടാക്കും മുകളിലേക്ക് കേറിപ്പോകാൻ പറ്റണത് പിന്നെ നമ്മൾ ബസിൽ വരുന്നത് ആ ബസിൻ്റെ ആവിശ്യമായിട്ടുള്ള നമ്മൾ നോക്കണ പറയുമ്പോൾ പിന്നെ ബസിൻ്റെ സെ ഡിക്കി അല്ലെങ്കിൽ ബാക്ക് ഭാഗത്ത് അതിൻ്റെ ടയർ ഉണ്ടാകും പിന്നെ സ്റ്റെപ്പിനി എന്ന് പറയും സാധാരണ അത് ഉണ്ടാകും പിന്നെ ജാക്കി അതായത് അത് റിപ്പയറായി കഴിഞ്ഞാൽ മാറ്റാൻ ഉള്ള ജാക്കീം കാര്യങ്ങളും അതിൻ്റെ സ്റ്റോറേജ് ഉണ്ടാകും പിന്നെ വണ്ടിൽ സാധാരണ ഉണ്ടാകുന്ന പോലത്തെ പെട്രോൾ ഡീസൽ ടാങ്ക് ഓയിൽ ടാങ്ക് അങ്ങനത്തെ സാധനങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെയാണ് മിക്ക ബസിലും ഉണ്ടാകുന്നത് ഞാൻ ഒരുപാട് സ്ഥലത്തേക്ക് ബസിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റീസെൻറ്റ് ആയിട്ട് പറയുകയാണെന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ വരെ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് എപ്പോഴും ബസ് യാത്ര ചെയ്യാൻ ഒരു നല്ല ഇഷ്ടമുള്ള ആളാണ്